ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില കല്പിക്കുന്നത് എൻ്റെ കുടുംബത്തിനാണ് അതെന്താണെന്ന് വച്ചാൽ നമ്മളോരോരുത്തരും ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ മക്കൾ അവരുടെ കുടുംബത്തിനു വേണ്ടിയിട്ടാണ് പിന്നീട് ജീവിക്കുന്നത് ഒരു നല്ല സ്നേഹത്തോടെയും ഒരുമയായിട്ടുള്ള കുടുംബം ഉണ്ടെങ്കിൽ മാത്രമാണ് അതു ഭാവിയിൽ മുന്നോട്ട് പോകുകയുള്ളു അതോടൊപ്പം നല്ലൊരു കുടുംബം നമുക്കുണ്ടെങ്കിൽ തന്നെ അത് സമൂഹത്തിനും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്